ഞാൻ കുറച്ചൊക്കെ ചെടി ഉണ്ടാക്കുന്ന ഒരു ആൾ തന്നെ അപ്പം എൻ്റെ ഒരു ചങ്ങാതി ചിന്നു അവിടെ എറണാകുളം വീട്ടിലൊന്ന് ചെടി ഉണ്ടാക്കാനൊരു ഗാർഡൻ ഉണ്ടാക്കാൻ സഹായിക്കുമോ എന്ന് പറഞ്ഞിനു അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ ഓൾടെ വീട്ടിൽ ആദ്യം പുല്ലൊക്കെ പറിച്ച് ചെത്തി നന്നാക്കി സ്ഥലം ഒക്കെ നല്ല രീതിയിലാക്കി എടുത്തു പിന്നെ അതിനുശേഷം ചെടികൾ എൻറെ അടുത്തുന്നും പിന്നെ ഓൾ വേറെ സ്ഥലത്തുനിന്ന് ഒക്കെ ചെടികളൊക്കെ ഉണ്ടായിനി അതൊക്കെ എടുത്ത് ദാണ്ട അതിൽ കുഴി കുത്തി ദാണ്ട അതിൽ ചാണകവും കമ്പോസ്റ്റ് അങ്ങനത്തെ ഒക്കെ ഇട്ടുകൊണ്ട് ചെടികളൊക്കെ വെച്ചു നല്ല രീതിയിൽ നനച്ച് കൊടുത്തു കുറേ ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം അറേഞ്ച് ചെയ്തീന് ഓരോ ചെടിയും ഓരോ ഭാഗത്തായിട്ട് അതിൻ്റെ രീതിക്കനുസരിച്ച് ഞങ്ങൾ അത് അറേഞ്ച് ചെയ്ത് വെച്ചെടുത്തു വയ്ക്കാൻ ഞാനും കൂടി സഹായിച്ച് ഞങ്ങൾ രണ്ടാളും കൂടെ വെച്ചു പിന്നെ അതിൽ കുറേ ബുഷ് ആയിട്ടുള്ള ചെടികൾ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടി നല്ല ബുഷ് ആക്കി നിർത്തി റെഡി ആക്കിവെച്ചു ആദ്യം തന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ടും മാറ്റി ഓരോ ക്യാറ്റഗറിയിൽ പെട്ട ചെടികൾ ആ ഒരു രീതിക്കാക്കി വെച്ചെടുത്തു പിന്നെ ചാണകപ്പൊടിയും വളവും ഒക്കെ ഇട്ട് മണ്ണിട്ട് കൊടുക്കേണ്ടതൊക്കെ ഉണ്ടായിനി അതൊക്കെ മണ്ണിട്ട് കൊടുത്തു വെള്ളം നനയ്ക്കാനും അതിനൊക്കെ സഹായിച്ചു നല്ല ഓൾക്കും നല്ല ഇഷ്ടമാണ് പൂവൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെയാണ് ചെടികൾ ഉണ്ടാക്കുന്നതും കാണുന്നതും പൂ വിരിഞ്ഞത് കാണുന്നതൊക്കെ ഒരു സന്തോഷമല്ലേ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനും കൂടെ കൂടിക്കൊടുത്തതാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗാർഡൻ ആക്കി കൊടുത്തിട്ടുണ്ട് വൈകുന്നേരം എന്തായാലും നമ്മൾ എന്നും ചെടികളെ പരിപാലിക്കണം വെള്ളം നനയ്ക്കലും ഇതൊക്കെ വേണം ചെടി നല്ല രീതിയിൽ വളരണമെങ്കിൽ അതിൻ്റെ കൂടെത്തന്നെ നമ്മൾ നിന്നുകൊടുക്കണം എന്നൊക്കെ ഞാൻ ഓൾക്ക് പറഞ്ഞുകൊടുത്തു എൻ്റെ വീട്ടിലെ ചെടികൾ ഞാൻ അങ്ങനെതന്നെ എ വൈകുന്നേരം ആവുമ്പോൾ നനച്ചും അതിന് വേണ്ട വളങ്ങളൊക്കെ ഇട്ടുകൊടുക്കും അതിൽ ഉണ്ടാവുന്ന കളകളൊക്കെ പറിക്കുക അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഒക്കെ അവർക്ക് പറഞ്ഞുകൊടുത്തു അവളും ഇപ്പം എല്ലാദിവസവും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ അതിൻ്റെ വിത്തുകളൊക്കെ മാറ്റി നടേണ്ട സമയത്ത് നടാനും കൊമ്പ് മുറിക്കേണ്ടതൊക്കെ മുറിച്ച് പുതിയ തൈകൾ ഉൽപാദിപ്പിക്കേണ്ട രീതി അതൊക്കെ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഓളും ഞാനും ഒക്കെ നല്ലൊരു ഗാർഡൻ കൊണ്ടുനടക്കുന്നുണ്ട്